ഹലോ ആ ഹലോ ഞാൻ റെയിൽവേ സ്റ്റേഷനീന്ന് വിളിക്കുവായിരുന്നേ ആ ഒരു തിരുവനന്തപുരത്തോട്ടുള്ള ഒരു ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നോ എ സീ ല് ആ അത് മലബാർ എക്സ്പ്രെസ്സിലാണെ നമ്മൾ പോകുന്നത് ടിക്കറ്റ് എടുത്തേക്കുന്നത് ടിക്കറ്റ് ബുക്ക് ആയായിരുന്നോ നോക്കിയായിരുന്നോ ആയില്ലായിരുന്നോ ആണോ അത് അത് ഇപ്പോൾ ടിക്കറ്റ് അവൈലബിള് ആണ് അതൊന്ന് നോക്കിയിട്ട് ആറ് ഏ സി ലാ ആറ് ഏ സി ലാവുമ്പോൾ പക്ഷെ ബർത്ത് ഷെയറ് ചെയ്യേണ്ട വരും ഒരു ആളുടെ കൂടെ എന്നാലും കുഴപ്പം ഇല്ല നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ മലബാർ എക്സ്പ്രെസ്സിലാണ് കേട്ടോ ട്രെയിനിൻ്റെ പേര് മലബാർ എക്സ്പ്രെസ്സ് എന്നാണേ ആ അതൊന്ന് ഓർത്ത് വച്ചേക്കണം പിന്നെ പൈസേല്ലാം അടച്ചായിരുന്നോ അതിൻ്റെ ടിക്കറ്റിൻ്റെ ആ പൈസ അടച്ചതാണോ ഓക്കെ ഓക്കെ അപ്പോൾ അ റെയിൽവെ സ്റ്റേഷനില് കറക്റ്റ് സമയത്തിന് വരണം അവിടെ ബോർഡില് നമ്മുടെ ഏത് സ്റ്റേഷനീന്നാ എവിടുന്നാ കയറുന്നത് എന്നും കോച്ച് പൊസിഷനും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കി കയറണം കേട്ടോ ആ ആ അപ്പം അതാണ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ആ വേറെ സംശയം ഒന്നും ഇല്ലല്ലേ അപ്പോൾ ഈ ട്രെയിൻ ഈ ഒരൊറ്റ ട്രെയിനെ ഉള്ളൂ കേട്ടോ തിരുവനന്തപുരത്തോട്ട് നമ്മടെ സ്ഥലത്തുനിന്ന് മലബാർ എക്സ്പ്രെസ്സെ പേര് മറക്കല്ലേ പേര് മറക്കല്ലെ മലബാർ എക്സ്പ്രെസ്സ് ആണെ അപ്പം ഈ തിരുവനന്തപുരത്തോട്ട് എന്ത് ആവശ്യത്തിന് വേണ്ടി ആയിരുന്നു പോവുന്നെ ആണല്ലേ ഓക്കെ തിരുവനന്തപുരത്തിന് അടുത്ത് ഉള്ള സ്റ്റേഷനിൽ തന്നെയാണോ ഇറങ്ങുന്നെ ആ ആണോ ഓക്കെ ഓക്കെ അപ്പോൾ തിരിച്ചുള്ള തിരിച്ചുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ തിരിച്ചും തിരിച്ചും ഉടനെ തന്നെ എടുക്കണം കേട്ടോ കാരണം ടിക്കറ്റ് കുറവാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയാണെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഉടനെ തന്നെ ഒന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കണേ ആ തിരിച്ച് ഉടനെ തന്നെ എടുക്കണം ആ അതുപോലെത്തന്നെ തിരിച്ചും ഏ സീ ല് ഉണ്ട് സ്ലീപ്പറെലും ഉണ്ട് പിന്നെ നമുക്ക് ജനറലേലും വരാം പക്ഷെ ഏ സി യെ വരുന്നതായിരിക്കും കുറച്ചുംകൂടി നല്ലത് സ്ലീപ്പറേലും ജനറലേലും ഒക്കെ തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് നോക്കണേ ആ ഓക്കെ അപ്പോൾ അത്രയല്ലേ ഉള്ളൂ വേറെ സംശയം ഒന്നും ഇല്ലല്ലോ ആ ഓക്കെ ആ എന്നാൽ ഓക്കെ ശരി ആ